വയനാട് ജില്ലയിലെ ചരിത്രം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ പിന്നെ ബ്രിട്ടീഷ്കാരാണ് ഇവിടെ ഭരിച്ചോണ്ടിരുന്നത് അതായത് ഇപ്പോ ഉള്ള സ്കൂളുകളും അങ്ങനെ പല സ്കൂളുകളുമുണ്ട് വായനാട്ടില് ഇപ്പോത്തന്നെ അതായത് ബ്രിട്ടീഷ്കാര് കെട്ടിയ സ്കൂളുകളൊക്കെ പിന്നെ അതായത് അന്ന് പഴശ്ശീൻ്റെ കാലത്തായിരുന്നു ഈ ബ്രിട്ടീഷ് ഭരണം ആപ്പോന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ അവരുടെ അധീനതയിലായിരുന്നു നമ്മൾ എല്ലാരും ജീവിച്ചോണ്ടിരുന്നത് അവരുടെ ചൊൽപ്പടിക്ക് നിന്നിട്ടൊക്കെയായിരുന്നു നമ്മൾ ജീവിച്ചോണ്ടിരുന്നത് അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു ഈ ആയിരത്തിത്തൊള്ളായിരത്തി നാല്പത്തേഴ് കാലഘട്ടത്തിലൊക്കെ അങ്ങനെ കർഷക കലാപങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ വലിയ ഒരു പ്രശ്നമായിട്ട് കുറെ കർഷകരുടെ ആത്മഹത്യ കർഷക മരണം അങ്ങനെയുള്ള അതൊക്കെ ആ അന്നത്തെ കാലത്ത് വളരെ കൂടുതലായിരുന്നു പിന്നെ അതായത് ഈ പഴശ്ശിരാജ ഒക്കെയാണ് ഈ യുദ്ധം ചെയ്തിട്ട് നമ്മുക്ക് നമ്മുടെ ജില്ലയൊക്കെ അതായത് നമ്മുക്ക് നമ്മുടെ അധീനതയിൽ ജീവിക്കാനുള്ളൊരു സാഹചര്യം തന്നതൊക്കെ ഈ പഴശ്ശിരാജ അങ്ങനെയുള്ള വ്യക്തികളൊക്കെയാണ് അപ്പം അതൊക്കെയാണ് വയനാട് ജില്ലയുടെ ചരിത്രമെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ബ്രിട്ടീഷ്കരുടെ അധീനതയിൽ നിന്ന് നമ്മുടെ പഴശ്ശിരാജ വെട്ടി പിടിച്ചിട്ടാണ് നമ്മുക്ക് കിട്ടിയത്